അതായത് ഓണ്ലൈന് ഷോപ്പിങ് പ്ലാറ്റ്ഫോമിലേക്ക് അതായത് ആപ്പിൽ മൊബൈലിലുള്ള ആപ്പിലേക്ക് കയറുക അതിന് മുൻപായിട്ട് നമുക്ക് ഒരു കോഡ് ഒണ് ഇത് പോലെ തന്നെ നമുക്ക് ലഭിക്കുകയുണ്ടായി അതായത് എനിക്ക് ആവശ്യമുള്ള ക്യാമറകള്ക്ക് വിലക്കുറവിലുള്ള വിലക്കുറവിന് വേണ്ടി ഒരു കോഡ് ഒരു കോഡ് എനിക്ക് സമ്മാനമായി കോഡ് ലഭിക്കുകയും ആ കോഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾക്ക് ഏത് ക്യാമറയാണോ വേണ്ടത് ആ ക്യാമറ നമ്മൾ ഓഡറ് ചെയ്യുകയും അതിന്റെ പേയ്മെന്റിന്റെ അവിടെ ഇനി കോഡ് എനി കൂപ്പണ്സ് എന്നു പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും അവിടെ ഈ കോഡ് പേസ്റ്റ് ചെയ്യുകയും അപ്പോള് തന്നെ ഈ കോഡിന്റെ ആ കോഡ് മുഖാന്തരം നമ്മുടെ ഓഡറ് ചെയ്ത നമ്മുടെ ഫോട്ടോഗ്രഫിക്ക് അത് അനുസരിച്ചുള്ള വില കുറയുകയും ചെയ്യുന്നു